പാചകം ചെയ്യുമ്പോൾ എടുക്കുന്ന മുൻകരുതലുകൾ ആദ്യം ഗ്യാസ്സൊക്കെ ലീക്കൊന്നും അല്ലല്ലോയെന്നു നോക്കും പിന്നെ കത്തി വെച്ചു മുറിക്കുമ്പോൾ കയ്യിൽ ഗ്ലൗസിടാറുണ്ട് പിന്നേ നമ്മൾ കറി പാകം ചെയ്ത് തുടങ്ങുമ്പം ഇങ്ങനെ പൊടികളെല്ലാം അടുത്തടുത്തു തന്നെ വെക്കും പരമാവധി പൊള്ളുന്നത് ഒഴിവാക്കാൻ പറ്റുന്ന രീതിക്കു തന്നെയാണ് ശ്രദ്ധിക്കുക പിന്നെ ജനലുകൾ തുറന്നിടുക ലയ്റ്റ് ഉണ്ടായിരിക്കും അങ്ങനത്തെ ഇത്തരം തയ്യാറെടുപ്പ് തയ്യാറെടുപ്പുകൾ മാത്രമേ എടുക്കാറുള്ളു